ഹ ഹലോ അതെ അതെ അതെ വള്ളി വള്ളി എപ്പോൾ ഇപ്പോന്ന വേണോ അല്ല കുറച്ച് ലേറ്റ് ആയിട്ട് മതിയോ അഞ്ചുമണിക്കാ ആ അഞ്ചുമണിക്ക് ഓക്കേ എനിക്കൊരു ബറവ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനോരു എവിടുന്നാ ഇത് പോവാൻ പുതിയ ബസ്സ്റ്റാണ്ടിനടുത്തല്ലേ പുതിയ ബസ്റ്റോനടുത്ത് പള്ളിക്കാരെൽ പോണെണെങ്കിൽ ഒരു കാസർഗോഡ് കാസർഗോഡിന്ന് ബേക്കല് വന്നിട്ട് ഒരു ഒര് മുന്നൂറ്റി എൺപത് ത്രീ ഹൻഡ്രെഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആവും മേഡം വെയിറ്റ് ചെയ്യണമോ

ആ എത്ര ഇത് എത്ര സമയം ഏകദേശം വേണ്ടിവരും നിങ്ങൾക്ക് ഒരു മണിക്കൂറാ ഓക്കേ ഓക്കേ അപ്പം ഞാൻ കറക്റ്റ് പുതിയ ബസ്സ്ടാണ്ടിൽ എത്രമണിക്ക് വരണം അഞ്ച് പത്തിനല്ലേ ആ അപ്പം നിങ്ങൾ പുതിയ ബസ്റ്റാൻഡിന് ആടെ എത്തിയാപാട് എന്നെ ഈ നമ്പറിൽ വിളിച്ചോളി ഞാൻ ആ ബസ്സ്റ്റാൻഡിൻ്റെ പുറക് സൈഡിൽ അടെ നിൽക്കാം അതിൻ്റെയാ വണ്ടിൻ്റെ മുൻ വശത്ത് പിന്നെ ആ ഒരു പേരുണ്ട് ആ ബോർഡിൽ ആ പേര് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് ബ്

പാസ്സഞ്ചേഴ്സ് എത്ര ആളുണ്ട് ആ അഞ്ച് ആൾ ലോഡ് ഭയങ്കര എല്ലാം തടിച്ചവരല്ലല്ലേ

ആ ഓക്കേ ഓക്കേ അഞ്ച് ആളിണ്ടല്ലേ ഓക്കേ ഓക്കേ അതിൻ്റെ റിക്ഷൻ്റെൽ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ബെക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസിലാവും ആ ആ ആ ആ

ഓക്കേ മാഡം ഓക്കേ താങ്ക് യൂ താങ്ക് യൂ